വിരമിച്ചവര് മുതിർന്നവര് എന്നൊക്കെപ്പറഞ്ഞാൽ എന്തെങ്കിലും അസുഖത്തിന് അടിമപ്പെട്ടവരോ അല്ലെങ്കിൽ സഞ്ചരിക്കാൻ ബുദ്ധിമുട്ടുള്ളവരോ അല്ലെങ്കിൽ പരസഹായം കൂടാതെ കാര്യങ്ങൾ ചെയ്യാൻ പറ്റാത്തവരോ ഒക്കെയായിട്ടുള്ള ആൾക്കാരാണ് അവർക്ക് കാര്യങ്ങൾ അറിയാനും ആ ക് അറിഞ്ഞ കാര്യങ്ങളെക്കുറിച്ച് അതിൻ്റെ ഭല പ്രാബല്യത്തിൽ എത്തിക്കാനോ അവര് അന്വേഷിക്കാനും അതിൽ ചിന്തിക്കാനും അതിൽ എടപെടാനൊക്കെ ഇവരെ സംബന്ധിച്ചിടത്തോളം ടി വി യും ഇൻ്റർനെറ്റും വളരെ അത്യാവശ്യമാണ് വളരെ ഉപകാരപ്രദവുമാണ് അതവർക്ക് ഉപകാരപ്പെടുന്നുണ്ട് ദൈനംദിന ജീവിതത്തിൽപോലും ഇത് അവർക്ക് വളരെ ഉപകാരാണ് കാരണം മറ്റ് ജനങ്ങളെ അല്ലെങ്കി മറ്റുള്ള ആൾക്കാരെ മാൻപവർ ഇല്ലാതെത്തന്നെ സ്വന്തമായിട്ട് കാര്യങ്ങള് ചെയ്യാൻ അവർക്ക് ക കഴിയുന്നുണ്ട് കഴിയും എന്നുള്ള സാങ്കേതിക വിദ്യ ആയത്കൊണ്ട് അവരത് ഉപകാരപ്രധമാക്കുന്നുണ്ട്